ഗ്രാമപ്രദേശത്ത് കർഷകരടെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് കാലാവസ്ഥ മാറ്റം തന്നെയാണ് അവർ ലോണെടുത്തും കടം വാങ്ങിയൊക്കെ ആയിരിക്കും കൃഷി ഇറക്കുന്നത് പാടത്ത് നെൽകൃഷി ആയാലും പൂഞ്ചയിൽ

കാറ്റ് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഇത് കൃഷിയൊക്കെ നശിക്കുമ്പോൾ അവർക്ക് വലിയ നഷ്ടം തന്നെയാണ് അപ്പം ആ നഷ്ടം നികത്തനായിട്ട് കൃഷി വകുപ്പ് സാങ്കേതിക സഹായങ്ങളൊക്കെ നൽകുന്നത് നന്നായിരിക്കും അതുപോലെ ചെറുകിട കർഷകർക്ക് കൃഷി ആയിട്ട് ബന്ധപ്പെട്ട സൗജന്യമായിട്ട് ഉൽപാദനോപാധികൾ അതല്ല എങ്കിൽ പരിശീലനം നൽകുന്ന ക്യാമ്പുകളൊക്കെ നൽകുന്ന നല്ലതായിരിക്കും അതായത് തേനീച്ച വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ ജൈവപച്ചക്കറി ആടുവളർത്തൽ അതിലൊക്കെ പരിശീലനം കൊടുക്കാനായിട്ട് കൃഷി വകുപ്പ് മുന്നിട്ടിറങ്ങുക